നമുക്കൊരിക്കലും രണ്ടു ഭാഷകളെ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല അതിപ്പം മലയാളമാണെങ്കിലും ശരി ഹിന്ദിയാണെങ്കിലും ശരി ഓരോ നാടിനും അവരുടെ മാതൃഭാഷയും അതുപോലെ തന്നെ ഔദ്യോഗിക ഭാഷയും പ്രിയപ്പെട്ടതാണ് ചിലർക്കിപ്പം മാതൃഭാഷയോടായിരിക്കും കൂടുതൽ താൽപ്പര്യം ചിലർക്ക് ഇപ്പം അവരുടെ ഔദ്യോദിത ഔദ്യോഗിക ഭാഷ സംസാരിക്കുന്നതിനോടായിരിക്കും ഇഷ്ടം അത് അതെല്ലാവരുടേയും ഓരോത്തരുടെ രുചിയനുസരിച്ചിരിക്കും അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പം നമുക്കത് തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല